ഹലോ ആ അതെ താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ആ കൊണ്ടു പോകാലോ ആ നമ്മളവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നതിനാണ് ചാർജ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഓക്കെ ഫുഡൊക്കെ അവിടെ ഉണ്ട് നമ്മള് അവിടുന്ന് ചെന്ന് ഇവിടുന്ന് ചെന്ന് ഇറങ്ങി ഇവിടെ ഇവിടുന്നൊരു അര മണിക്കൂർ യാത്രയുണ്ട് അര മിനുറ്റ് അവിടുന്നെല്ലാം കണ്ട് അങ്ങ് എന്നിട്ട് പോയി അവിടെ ഇറങ്ങുകയാണ് അവിടെ ഇറങ്ങിയിട്ട് അവിടെ എല്ലാം കിട്ടുന്നതാണ് അവിടെ എല്ലാ ഹോട്ടലും അവിടെ ഒക്കെ എല്ലാം ഉള്ളതാണ് എല്ലാം ആ ഈ വോ ബോട്ട് തുടങ്ങി ആ അയ്യോ അതങ്ങോട്ടൊന്നും പോകില്ല അങ്ങോട്ടൊന്നും പോകില്ല അത് അങ് കുട്ടനാടൊക്കെ അങ്ങോട്ടാണ് ആ ഇത് പോകും നമുക്കാദ്യം ഈ സാംബ്രാണിക്കൊടിയൊന്ന് കണ്ട് അതിന് അകത്തൂടെ എല്ലാം പോയി കണ്ട് നിങ്ങളുടെ ഹോട്ടൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു ഡ്രൈവും പോയിട്ട് വരാം ബോട്ടില് റേറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു അയ്യായ്യിരം അതിന് അകത്തൊക്കെയെ വരുള്ളൂ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് ആദ്യം ഒരു റൈഡ് ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണ് എല്ലാവരെയും കൊണ്ട് പിന്നെ വരുന്നവരുടെ എണ്ണം നമുക്ക് ആള് കൂടുന്നതിന് അനുസരിച്ച് ബോട്ട് കൂടും കാരണം ഒരു വണ്ടിയില് ഇത്ര പേരെ സഞ്ചരിക്കാൻ കഴിയുള്ളു ആ ഇപ്പോൾ സാധാരണ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത് സാധാ വഞജ് വഞ്ചി അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല ആ അതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് നോക്കുന്നുണ്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് എല്ലാം ആ പ്രൂ ആ പ്രോപ്പറാണ് എല്ലാം പ്രോപ്പറാണ് നമ്മളെല്ലാം എല്ലാം ചെക്ക് വണ്ടി എടുക്കാറുള്ളു ബാക്കി ഡീറ്റൈൽസ് എന്ന് പറഞ്ഞാൽ സത്യം പോലും അ ത് അയ്യോ അങ്ങനൊന്നും ഇല്ല നമ്മളതൊന്നും ഇല്ല കാരണം ആ ചിലപ്പോൾ നമ്മള് സാംബ്രാണിക്കൊടിക്കകത്ത് കയറുമ്പോൾ കാണുമായിരിക്കും കാരണം അവിടെ എത്ര പേര് വരുന്നുള്ള എന്നോര് എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ കിട്ടും വെജ് നോൺ വെജ് കാണില്ല വെജെ കാണുള്ളൂ ഇതിന്റെ അകത്ത് ആ അ

നോൺ വെജ് നിങ്ങൾക്ക് അവിടുന്ന് നോൺ വെജെ കി വെജെ കിട്ടുള്ളു കാരണം നിങ്ങളുടെ അവിടുന്ന് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഉച്ച ആ ഒരു ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലം വഴി പോകുന്നുണ്ട് റൈഡിനൊക്കെ അപ്പോൾ അവിടെ വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും ടീമായിട്ട് ഫ്ലോ ഫ്ലോട്ടിങ് ബോട്ട് എന്ന് പറഞ്ഞൊരു ഹോ സ്ഥലമുണ്ട് അവിടുന്ന് വാങ്ങി കഴിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ കായലിൻ്റെ നടുക്കാണ് ചുറ്റിലും വെള്ളമാണ് അതുകൊണ്ട് കായലിൻ്റെ നടുക്കാണ് ഹോട്ടൽ അതുകൊണ്ടാണ് അത്രയും ഫീല് ആ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി